ഹലോ ആ ആ ആ ഇത് ഞാൻ വിളിച്ചതാണ് എനിക്കൊരു പെഡിക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയായിട്ട് എങ്ങനെയാണ് എന്നാണ് അറിയാനായിട്ട് വിളിച്ചതാണ്

ആ ആ ആ രണ്ടായിരം രൂപയുടെ ഒന്നും വേണ്ട നമ്മൾക്ക് അതിനേക്കാട്ടും റെയിഞ്ച് താ ഴ്ന്നതൊക്കെ മതി ആ മീഡിയം ടൈപ്പിലുള്ളത് മതി അതിന് എത്ര രൂപയാവും എന്ന് നോക്ക് നമുക്ക് പ്ലംബിൻ്റെ ചെയ്താൽ മതി

ആ അത് നാളെ വേണമെങ്കിൽ രാവിലെ അങ്ങ് വന്നേക്കാം എത്ര മണിക്ക് എത്ര മണിക്ക് വേണം എത്ര മണിക്ക് വരണം രാവിലെ ഒരു പത്ത് മണി ആവുമ്പോൾ വന്നാൽ പോരെ ആ ആ എന്നാൽ അന്നേരം വന്നേക്കാം ഞാൻ അവിടെ ശരി ശരി